ആ സാർ ഗുഡ് ഈവനിംഗ് ആ എൻ്റെ പേര് അർജുൻ എന്നാണ് സാറേ ആ ആ എൻ്റെ മോൾക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ഇത് എൽ കെ ജിക്ക് ആ എൽ കെ ജിക്ക് ആ അതിപ്പോൾ

ഇല്ല സാർ അതിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ആ അതിനെ കുറിച്ച് ചോദിക്കാൻ ആണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡൊണേഷനും ഫീസൊക്കെ ആ ഡൊണേഷൻ വൺ ലാക്ക് പുറമെ ഫിഫ്റ്റി തൗസൻഡ് അല്ലേ ഫീസ് ആ ഓക്കെ സാർ പിന്നെ എഡ്യൂക്കേഷൻ ഒക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത് സാറേ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ മാത്രമാണോ അതോ അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്റ്റീവ് ആയ ആ അതെ അല്ലേ ആ ഓക്കെ ആ ഉണ്ട് അല്ലേ കൊണ്ട് വരേണ്ട അല്ലേ ആ ഓ ഓ അതെ അല്ലേ ആ പിന്നെ മാർഷൽ ആർട്സൊക്കെ എങ്ങനെ ഉണ്ടോ ആ അപ്പോൾ തുടരുന്ന വർഷങ്ങളിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ ആ അതെ അല്ലേ ആ ഓക്കെ സാർ താങ്ക് യു അപ്പോൾ

ആ ഓക്കെ അപ്പോൾ ഈ നമ്പറിൽ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്താൽ പോരെ സാറേ മെയില് ആ ഓക്കെ സാർ തങ്ക് യു